ആ വരൂ ആ വരൂ വരൂ ഇരിക്കൂ

ഓക്കേ

ഓക്കേ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂല്ലേ എവിടെയാ പഠിച്ചത് ആ ഓക്കേ എത്ര പേഴ്സൻറ്റേജ് ഉണ്ട്

ആ അപ്പൊൾ നമുക്ക് ഐടി ഫീൽഡ്ന്നു പറയുമ്പോൾ ഇപ്പൊൾ നമ്മള് നോക്കുക പ്ലസ് വൺന് കംപ്യൂട്ടർ സയൻസെടുത്താൽ മതി അങ്ങനെയൊന്നുല്ല ഇപ്പൊൾ തൊണ്ണൂറുണ്ട് തൊണ്ണൂറ്റി രണ്ടുണ്ടല്ലോ എന്തായാലും കിട്ടും അപ്പൊൾ കമ്പ്യൂട്ടർ സയൻസിലൊരു എൻപതൊക്കേണ്ട് പറഞ്ഞാല് കമ്പ്യൂട്ടർ സയൻസില് കിട്ടും നല്ല സ്കൂളൊക്കെ കിട്ടും കുഴപ്പമൊന്നുമില്ല ഇല്ല അത്ര പാടൊന്നും ഇല്ല മാത്സുണ്ടാകും ഇല്ല കമ്പ്യൂട്ടർ സയൻസില് അത്ര ഇതൊന്നുല്ല അത്ര പാടൊന്നും വരില്ല നമുക്ക് പഠിച്ചെടുക്കാം അതിപ്പോൾ ഏതു ഇതിലായാലും കംപ്യൂട്ടറായാലും ബയോളജി ആയാലും മറ്റേ ഏതു സബ്ജെക്ട് നോക്കണെങ്കിലും മറ്റേ ഇത് മാത്സ് വരുന്നുണ്ട് അപ്പോൾ മാത്സിനു കുറച്ചും കൂടെ ഒരു ടൈം എടുത്തു പഠിക്കാനല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ആ അപ്പോൾ നമ്മളിത് പ്ലസ്ടു പഠിക്കണേൻ്റെയൊപ്പം ഐടി മേഖലയല്ലേ പറഞ്ഞത് അപ്പോൾ നമുക്ക് കീം എഴുതേണ്ടി വരും അതായത് എൻജിനീയറിങ് എക്സാം എഴുതേണ്ടി വരും ആ അതെഴുതിയാൽ മാത്രമേ നമുക്ക് പിന്നെ എൻജിനീയറിങ്ങിൻ്റെയിതു കിട്ടുള്ളൂ സീറ്റ് കിട്ടാൻ വേണ്ടീട്ടെ ഗവണ്മെൻറ്റ് സീറ്റ് കിട്ടാൻ വേണ്ടീട്ട് അതുവേണം അപ്പൊൾ പ്ലസ് വൺ പ്ലസ്ടൂൻ്റെയൊപ്പം ചെയ്താൽ മതി ഇല്ല പറഞ്ഞാൽ പിന്നെ നമ്മള് വീണ്ടും അതിനു വേണ്ടി ഒരു കൊല്ലം സമയം കളയണം ഇതാകുമ്പോൾ ഇതിൻ്റെയൊപ്പം പഠിക്കാനുള്ളതൊക്കെ അതായത് ഇതേ സിലബസ് തന്നെയാണ് അതിനും ആ എക്സാമിനും അപ്പൊൾ ഇതിൻറ്റെയൊപ്പം ഒപ്പം പഠിച്ചാൽ അതു രണ്ടും ഒരുമിച്ചു കഴിഞ്ഞ പോലെയായി ഈ എക്സാം കഴിഞ്ഞിപ്പോൾ നമ്മടെ പ്ലസ്ടുൻറ്റെ എക്സാം മാർച്ചിൽ കഴിയുമല്ലോ അപ്പൊൾ കീമിൻറ്റെ എക്സാം ഒരു പത്തു പതിനഞ്ചു ദിവസം ഏപ്രിൽ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻറ്റ് വീക്കൊക്കെ ആയിട്ടു കീമിൻ്റെ എക്സാം വരും അപ്പൊൾ അതും കഴിഞ്ഞു പറഞ്ഞാൽ ആ കൊല്ലം തന്നെ പാസായി കഴിഞ്ഞാൽ അപ്പൊൾ നമ്മുടെ ആ ഒരു കൊല്ലം വേസ്റ്റാവില്ല ഇല്ലേൽ പിന്നെ നിങ്ങളിനി പ്ലസ്ടു കഴിഞ്ഞു ഒരു കൊല്ലം വീട്ടിലിരുന്നു പഠിച്ചു എന്തിനാ വെറുതെ ആ പിന്നെയപ്പോൾ അത് പാസായി കഴിഞ്ഞാൽ ആ അതേയതേയതേ കീം പാസ്സായാലും അതിലും രണ്ടു ഓപ്ഷൻ ഉണ്ട് ഐടി ഫീൽഡും എടുക്കാം ഐടി എടുക്ക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ എൻജിനീയറിംഗ് എടുക്കാം ഐടി അതേതെടുത്താലും ഐടി മേഖലയായിട്ടു ബന്ധപ്പെട്ട ജോലികളാണ് നമുക്ക് കിട്ടുക അതിപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻറ്റെ ഇപ്പോൾ കൂടുതലായിട്ടു നോക്കണം ഇപ്പോൾ സോഫ്റ്റ് വെയർ അങ്ങനെ പോകാണ് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസെടുക്കുക അല്ല അതിൻറ്റെ ഹാർഡ്വെയറിൻറ്റെ ഭാഗമായിട്ട് പോകുവാണ് പറഞ്ഞ ഐടി എടുക്കുക അത് നിങ്ങളുടെ താല്പര്യം പോലെ ഇരിക്കും പിന്നേ കീമിൻറ്റെയോ കിമ്മിൻറ്റെ ഇപ്പൊൾ വിളിച്ചിട്ട് അതടുത്ത കൊല്ലം ചെയ്താൽ മതി കീമിൻറ്റെ പ്ലസ്ടു പഠിക്കുമ്പോഴാണ് കീം എക്സാം രജിസ്റ്റർ ചെയ്യണ്ടേ ഏകദേശം സെപ്തംബർ ആ മാസ സെപ്റ്റംബർ അല്ലെങ്കിൽ ഡിസംബർ സമയത്താണ് തോന്നുന്നു അതിൻറ്റെ രജിസ്റ്ററേഷൻ വരുന്നത് അപ്പൊൾ ചെയ്താൽ മതിയത് ആ കീമ് പഠിപ്പിക്കാനുള്ളത് കുറെ സെൻറ്ററുകൾ പാലക്കാടുണ്ട് കുറേയെണ്ണമുണ്ട് പാലക്കാട് ടാലെൻറ്റ് പിന്നെ ശക്തൻ തമ്പുരാൻറ്റേൽ ഉണ്ട് പിന്നെ ബ്രില്ലിയൺസിലുണ്ട് അങ്ങനെ കുറെയുണ്ട് പാലക്കാടുതന്നെ കുറെ സ്ഥാപനങ്ങളുണ്ട് ആയിലേതെങ്കിലും ഇപ്പോൾ അങ്ങനെയിപ്പോൾ അതിനു കോച്ചിങ്ങിനു പോയി പഠിക്കണമേന്നൊന്നും ഇല്ല പക്ഷെ നമ്മളീ കീമിൻറ്റെ സില്ലബസൊക്കെ നോക്കീട്ട് നമ്മടെ പ്ലസ് വൺ പ്ലസ്ടു സിലബസ് ഏകദേശം സെയിം തന്നെയായിരിക്കും അപ്പൊൾ അതിൻറ്റെയൊപ്പം നമ്മള് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി രണ്ടുമൂന്ന് പേപ്പറൊക്കെ എടുത്തിട്ട് അതിനു വലിയ കുഴപ്പമൊന്നും വരില്ല ആ ഒക്കേ ഇനി അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വന്നാൽ മതി ആ ഓക്കേ ഒക്കെ